തീർച്ചയായിട്ടും എൻ്റെ വീട്ടിൽ കക്കൂസുണ്ട് അത് ഉണ്ടായിട്ട് അതിൻ്റടെ ഒരുപാട് പ്രയോജനങ്ങൾ നമ്മൾക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു വീട് അതിൻ്റെ ഒരുപാട് മുറികളെടുക്കുന്നത് പോലെ തന്നെ അതിൽ അതിൻ്റെതൊക്കെ ആവശ്യമായിട്ടുള്ള കക്കൂസും അതുപോലെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുളിമുറിയുമൊക്കെ അത്യാവശ്യമായ കാര്യമാണ് കാരണം ഒരു കുളിമുറി അല്ലെങ്കിൽ കക്കൂസ് ഒരു വീട്ടിലുണ്ടാാവുന്നുള്ളത് അത് ഒരു പ്രധാനമായിട്ടും അതൊരു ആശ്വാസമാണ് അതൊരു ഒരു വീട് വീട്ടിൽ ഒരു കക്കൂസുണ്ടാവുക എന്നുള്ളത് നമുക്ക് പ്രധാനമായിട്ടുള്ള പ്രാഥമികർമ്മങ്ങൾ അത്യാവശ്യമായിട്ടുള്ള പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനും അതിൽ മറ്റൊരു ആളുടെ വീടോ മറ്റൊരാളുടെ പരിസരമോ നമുക്ക് ആശ്രയിക്കാതെ നമുക്ക് നമ്മുടെ വളരെ എളുപ്പത്തിൽ അതുപോലെ വളരെ ആശ്വാസപരമായിട്ട് മറ്റെ ആൾ നമ്മുടെ വീട് വിട്ടിട്ട് മറ്റൊരാളുടെ വീട്ടിൽ പോയിട്ടുള്ള സമയം കളഞ്ഞു തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ലാതെ നമുക്ക് വളരെ നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഒരു വീട്ടിൽ ഒരു കക്കൂസ് ഉണ്ടാവുക എന്നുള്ളത് കൊണ്ട് പ്രധാനമായിട്ടുള്ള ഒരു ഉപകാരം എന്നുള്ളത് അതുപോലെ അത് നമുക്ക് ഒരു നമ്മുടേതായ പ്രൈവസി കാര്യങ്ങൾ തന്നുകൊണ്ട് ഒരു അത് അതുകൊണ്ട് ഒരുപാട് ആശ്വാസം അതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു കക്കൂസ് ഉണ്ടാവുക എന്നുുള്ളത് അത് നമുക്കൊരു മറ്റു പൊതു പൊതുവായ ഉള്ളതിന് പുറമേ നമുക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് കഴിഞ്ഞാൽ നമുക്കൊരുപാട് പ്രൈവസികൾ ഉണ്ടാവും ഉണ്ട് അതുപോലെ നമുക്ക് നമുക്ക് ആഗ്രഹിക്കുക ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു സംവിധാനം നമുക്ക് മറ്റുള്ളവർക്കും അവർക്കും അതിൽ പങ്കിടാൻ അവർക്കും അത് ഉപയോഗിക്കാവുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാനും നമുക്ക് ഇതോടെ സാധിക്കുന്നതാണ് അതുപോലെ ആരോഗ്യപരമായിട്ടും ആരോഗ്യപരമായിട്ടും ഒരുപാട് ഉപകാരങ്ങൾ ഈ ഒരു സംവിധാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് ഉദാഹരണത്തിന് പൊതുവായിട്ടുള്ള പൊതുവായിട്ടുള്ള കുളിമുറികൾ പൊതുവായിട്ടുള്ള കക്കൂസുകൾ തുടങ്ങിയവയൊക്കെ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ട് പല പ്രശ്നങ്ങളൾ നേരിടാൻ സാധ്യതയു അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടേതായിട്ടുള്ള നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു കക്കൂസുണ്ടാവുക എന്നുള്ളത് അത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ വൃത്തിക്ക് നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ വളരെ ഗുണമേറിയ കാര്യമാണെന്നുള്ളതാണ് അതുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് സമയം ലാഭിക്കാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ നമ്മൾക്ക് അറിയാം നമ്മുടെ ഒരുപാട് പൊതു സ്ഥലങ്ങൾ നമ്മൾ എത്ര എത്ര സമയങ്ങളാണ് ഈ ഒരു പ്രാഥമ കാര്യങ്ങൾ നിർവഹിക്കാനും വേണ്ടി നമ്മൾക്ക് ചിലവാകുന്നത് ആ ഒരു സമയം നമ്മുടെ വീട്ടിൽ ഈ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ നിർവഹിക്കാനും അതുപോലെ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാനും ഉണ്ടാവും

നല്ലൊരു ജീവിതം അതുപോലെ മറ്റു സാമൂഹികപരമായിട്ടുള്ള ഉപകാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു സംവിധാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്